ഹലോ ആ ആ ആരാണ് ഇത് ആ ആ ആ ആയിക്കോട്ടെ അതേ അതേ അതേ എൻ ആ ആ ആ ആ ആ റൂഫിങ് റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ആ ആ ആ ഒരു നൂറ്റി നാൽപത്തി ഞ്ച് റുപിയ ആടത്തേക്കെന്നെ ഷീറ്റ് ഷീറ്റടക്കം എടുക്കുന്നതാണ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ നിങ്ങളിപ്പം കോൺട്രാക്ട അല്ലേ നിങ്ങൾ അവിടെ നിന്നു എടുത്തിട്ട് നിങ്ങൾ വരുന്നതല്ലേ അപ്പോൾ ആ കോൺട്രാക്ടർ വർക്ക് എടുക്കുമ്പോൾ ഒരു പത്തുറുപ്യ കുറച്ചിട്ട് ഞമ്മ എടുക്കൽ ആ ആ നമ്മൾക്ക് നോക്കാം അത് ആ ഷീറ്റിൻ്റെ ഒരു ക്വാളിറ്റിയെല്ലാം നോക്കി നമുക്കതിൽ അഡ്ജസ്റ്റ് ആക്കാൻ കഴിയുമെങ്കിൽ നമ്മൾക്ക് ചെയ്യാം പ്രശ്നം ഇല്ല പിന്നെ ആ അത് നമക്ക് പിന്നെ ചെറിയൊരു പിന്നെ ആർട്ട് ഏരിയ എല്ലാം നോക്കിയിട്ട് പണിയെല്ലാം എത്ര ദിവസത്തിൽ കഴിയുമെന്ന് നമുക്ക് നോക്കീട്ടാട്ന്ന് ചെയ്യാം നമുക്ക് പിന്നേം ആ അഡ്ജസ്റ്റ് ആക്കാൻ കയ്യുന്നു തോന്നുന്നു എനിക്ക് ആ സ്ക്വയർ ഫീറ്റും എടുക്കലുണ്ട് പിന്നെ നിങ്ങൾ സാധനം ഇറക്കിത്തരുമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെത്തേക്ക് തന്നെ കൂലിക്കായിട്ടും എടുക്കലുണ്ട് കൂലീം അതേ പോലെ കൂലി സിമ്പിൾ വർക്ക് ആണെങ്കിൽ സിമ്പിൾ വർക്ക് ആണെങ്കിൽ ഒരു ഇരുപത്തഞ്ചുറുപ്യ സ്ക്വയർ ഫീറ്റിന് വച്ചിട്ടാണ് നമ്മൾ എടുക്കൽ കൂലിയിൽ പിന്നെ ഇത് അഡ്ജസ്റ്റ് ആക്കാൻ കഴിയില്ല നമ്മൾക്ക് ആ പിന്നെ അതെയോ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിപ്പോൾ നമ്മൾക്ക് നമുക്കൊരു കാര്യം ആക്കാം അത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമുക്കെടുക്കാം നമുക്കൊന്ന് നോക്ക് നോക്കാൻ പോവാം ഞാൻ നിങ്ങളെ സൈറ്റ് വന്നിട്ട് നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് എടുക്കാം രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഇല്ലാത്ത പോലെ നമുക്ക് രണ്ടാൾക്കും ഇതാക്കിയിട്ടെടുക്കാം അപ്പോൾ എപ്പോൾ പോകുന്നത് എന്നു പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് എന്നെ വിളിച്ചാൽ മതി കേട്ടൊ ആയിക്കോട്ടെ സൈറ്റ് സൈറ്റ് നോക്കാൻ പോവാം നമ്മൾക്ക് ഒരു ദിവസം ട്ടാ ഇല്ല ഇല്ല ആയി ഓക്കേ ഓക്കെ ഇല്ല ഇല്ല നമുക്ക് ചെയ്യാം പ്രശ്നമല്ല ഉണ്ട് പണിക്കാറുണ്ട് കുറച്ച് അപ്പോൾ നമുക്ക് ചെയ്യാം

വിളിച്ചാ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ ശരി ആയിക്കോട്ടെ ശരി ശരി